ഹലോ ഇത് ഹൗസ് ബ്രോക്കർ ആണോ എനിക്കെൻ്റെ ഫ്രണ്ട് തന്നതാണ് നിങ്ങളുടെ ഫോൺ നമ്പറ് ഞാൻ കൊച്ചിയിലാണ് താമസം എനിക്ക് കമ്പനിയുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ആറ് മാസത്തേക്ക് തലശ്ശേരീയിലൊര് വീട് വാടകയ്ക്ക് വേണമായിരുന്നു നിങ്ങളുടെ കൈയിൽ നല്ല വീടുണ്ടോ തലശ്ശേരിക്കടുത്തായിട്ടാണ് വേണ്ടത് അയ്യായിരം ആറായിരം രൂപയാണ് കമ്പനി നൽകുന്ന ബഡ്ജറ്റ് അതിനനുസരിച്ചിട്ടുള്ള വീട് വേണം

ആ ഏഴായിരം കുഴപ്പമില്ല രണ്ട് ബെഡ്റൂം വേണം ചെറിയ കിച്ചൻ ആയിട്ട് ചെറിയൊരു വീട് മതി

ആ ശരി അത് മതി നിങ്ങളുടെ ഡിപ്പോസിറ്റ് ഉണ്ടോ ആ അത് ശരി അത് കൊടുക്കാം ഞങ്ങള് ഞാൻ അടുത്ത മാസമാണ് ട്രെയിനിങ് അടുത്താഴ്ച്ച വന്നിട്ട് വീട് കണ്ടോളാം

നിങ്ങളുടെ ഫീസ് എന്ത് എങ്ങനെയുണ്ട് ബ്രോക്കർ ഫീസായിട്ട് ആ അത് തരാം എങ്കിൽ ശരി

ശരി അടുത്താഴ്ച്ച വരാം